നമസ്കാരം പറയു ഓക്കേ നമുക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് സാറിനിത് ഏതായിരിക്കും എളുപ്പമായിട്ടുള്ളത് തിരുവനന്തപുരം ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് എവിടെ ആയിട്ടാണ് ഉള്ളത് ഹലോ വോയിസ് കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ തമ്പാനൂര് തമ്പാനൂരല്ലേ അതിനടുത്ത് തന്നെ സാർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെ അതെ അവിടുന്നൊരു എഴുപത് കിലോമീറ്റർ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എഴുപത് കിലോമീറ്റർ എഴുപത് ഏഴ് പൂജ്യം അതെ അതെ നാളത്തേക്ക് വന്നാൽ കാണാൻ കഴിയും കാണാം അതെ അതെ സാറേ അപ്പം എങ്ങനെ ആയിരിക്കും വരുന്നത് ടാക്സി വഴിയാണോ ഓക്കേ ഓക്കേ അങ്ങനെ ആണേൽ നേരെ കൊട്ടാരക്കര വരിക അതെ അതെ കൊട്ടാരക്കര വന്നിട്ട് സാറ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അതെ അതെ അതെ അതെ ഞങ്ങള് ഇത് വരുന്നവർക്ക് നമ്മള് കോംപ്ലിമെൻറ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങള് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് നമുക്ക് വളർത്താനായിട്ട് പ്രാവുകളെ കൊടുക്കുന്നുണ്ട് വീട്ടിൽ വളർത്താവുന്നതാണ് അതായത് നമുക്ക് നമ്മള് ഇവരുദ്ദേശിക്കുന്നത് എന്തെന്നു വെച്ചാല് എക്കോ ഫ്രണ്ട്ലി ആണ്

അതെ അതെ അത് നമ്മുടെ ഫെസിലിറ്റി നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ ഈയൊരു ഫെസിലിറ്റി നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കോംപ്ലിമെൻറ്ററി ആയിട്ട് കാരണം എന്തേലും ഒരു ജീവി വളർത്തുക അതിൻ്റെ കൂടെ പെറ്റ് ആയിട്ട് എന്നുള്ളാണ് ഉദ്ദേശിക്കുന്നത് പ്രാവായിരിക്കുമ്പോൾ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ് ഓക്കേ ശരി താങ്ക്യൂ